ഹലോ ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് സമൂഹത്തിലെ എല്ലാ കുട്ടികൾക്കും തുല്യ വിദ്യാഭ്യാസ അവസരങ്ങൾ ഉറപ്പാക്കാൻ എന്തെല്ലാം നടപടികൾ കൈക്കൊള്ളാം എന്നതിനെക്കുറിച്ചാണ് ആദ്യം തന്നെ പറയട്ടെ ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം അനിവാര്യമാണ് ആവശ്യമാണ് അത് പണമുണ്ടോ ഇല്ലയോ എന്നു നോക്കിയിട്ടല്ല പണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരുപോലെ കുട്ടികൾക്ക് എന്തു ചെയ്യണം ഒരേ രീതിയിൽ എല്ലാ കുട്ടികൾക്കും ഒരേ രീതിയിൽ തന്നെ വിദ്യാഭ്യാസം ഉറപ്പാക്കേണ്ടതാണ് അല്ലാണ്ട് പണമില്ല എന്നു പറഞ്ഞ് ഇന്നത്തെ കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യ ഇന്ന് നേരത്തെതന്നെ പറഞ്ഞിരുന്നു വിദ്യാഭ്യാസം ഒരു കച്ചവടച്ചരക്കാണ് അപ്പോൾ ഒരു പൈസ ഉള്ള കുട്ടി സാമ്പത്തികമുള്ളൊരു കുട്ടിക്കാണെങ്കിൽ അവിടെ സീറ്റ് ഉറപ്പാണ് ഒന്നും നോക്കാണ്ട് തന്നെ ആ കുട്ടിക്ക് സീറ്റ് കൊടുത്ത് അവിടെ വിദ്യാഭ്യാസം നൽകുകയാണ് വിദ്യാഭ്യാസം എന്നു പറയാൻ പറ്റില്ല കാശിനു വേണ്ടിയിട്ട് വിദ്യാഭ്യാസം നൽകുന്നു പക്ഷെ വേറെയൊരു കുട്ടിക്ക് സാമ്പത്തികമില്ലാത്തൊരു കുട്ടിക്കാണെങ്കിൽ പല നിയമങ്ങളും അവിടെ വരുന്നു ചോദ്യം ചോദിക്കുന്നു ടെസ്റ്റ് എഴുതിക്കുന്നു അങ്ങനെ പല രീതിയിൽ അതുകൊണ്ടാണ് വിദ്യാഭ്യാസം കച്ചവടച്ചരക്കാണ് തന്നെയെന്നു പറയുന്നത് അത് ഒരേപോലെ വിദ്യാഭ്യാസം നൽകണമെങ്കിൽ ആദ്യം ഗവൺമെൻ്റ് ഗവൺമെൻ്റ് ഒരേ രീതിയിൽ തന്നെ കുട്ടികളെ ഇതാക്കണം അത് ഗവൺമെൻ്റ് സ്കൂളിലൊക്കെ സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ ഒരേപോലെയാണ് എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം നൽകുന്നത് പക്ഷേ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ അങ്ങനെയല്ല അപ്പോൾ അതിൻ്റേതായ അപ്പോൾ സി ബി എസ് സി ആണെങ്കിലും ഐ സി എസ് സി ആണെങ്കിലും അവർ ഒരു ടീമ് ഉണ്ടാക്കിയതിനുശേഷം എല്ലാ കുട്ടികൾക്കും ഒരേപോലെ സി ബി എസ് സിയുടെ റൂളനുസരിച്ച് സി ബി എസ് സിയിൽ ആ ഒരു മാനേജ്മെൻ്റ് ഉണ്ടാവുമല്ലോ അവർ എല്ലാവരുംകൂടി തീരുമാനം എടുത്ത് സാമ്പത്തികം ഉള്ളതാണെങ്കിലും സാമ്പത്തികം ഇല്ലാത്തതാണെങ്കിലും കച്ചവടം ഇല്ലയെന്നുള്ള രീതിയിൽ വിദ്യാഭ്യാസം കച്ചവടമല്ല എന്നുള്ള രീതിയിൽ എന്തു ചെയ്യുക അവർ ഒരു കൂട്ടായ തീരുമാനം എടുത്തിട്ട് നമ്മൾ വിദ്യ ആ അറിവ് നൽകുകയാണ് കുട്ടികൾക്ക് ആ ഒരു നടപടി സ്വീകരിക്കണമെന്നാണ് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ആ നടപടിയെന്നു പറയണത് സർക്കാർ എന്നു പറയണത് ഒരേ രീതിയിലാണ് കുട്ടികൾക്ക് തുല്യ വിദ്യാഭ്യാസം നൽകുന്നത് അത് സാമ്പത്തികമുണ്ടോ സാമ്പത്തികമില്ലേ എന്നൊന്നും നോക്കാതെ തന്നെയാണ് സർക്കാർ കുട്ടികൾക്ക് സർക്കാരിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരേപോലെ വിദ്യാഭ്യാസം നൽകുന്നത് പക്ഷേ മറ്റേ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ അങ്ങനെയല്ല സാമ്പത്തികമുള്ള കുട്ടികൾക്കുമാത്രം വിദ്യാഭ്യാസം നൽകും അറിവ് നൽകും പക്ഷേ സാമ്പത്തികമില്ല അപ്പോൾ പൈസ അടക്കാൻ പറ്റുന്നില്ല രണ്ടു മാസത്തെ ഫീസ് പെൻഡിങ് അല്ലെങ്കിൽ മൂന്ന് മാസത്തെ ഫീസ് പെൻഡിങ്ങുള്ള കുട്ടികളാണ് നമ്മൾ ആ കുട്ടിയെ മൈൻ്റെ ചെയ്യില്ല അത് വേണമെങ്കിൽ പഠിക്കട്ടെ വേണമെങ്കിൽ പഠിക്കാതിരിക്കട്ടെ എന്നുള്ളൊരു മൈൻഡിലാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ആ ഒരു വിദ്യാഭ്യാസം പോകുന്നത് അതിന് വേണ്ട നടപടിയെന്ന് പറയണത് സി ബി എസ് സി പ്രൈവറ്റ് ആളുകളെല്ലാം ഒരു കൂട്ടത്തോടെ തീരുമാനം എടുത്തിട്ട് നമ്മൾ കുട്ടികൾക്ക് നമ്മടെ അറിവ് നമ്മൾക്ക് ലഭിച്ച അറിവ് കുട്ടികൾക്ക് പകർന്നുകൊടുക്കുക എന്നുള്ള മനോഭാവത്തിൽ ഒരേപോലെത്തന്നെ സാമ്പത്തികമുണ്ടോ സാമ്പത്തികമില്ലേ എന്ന് നോക്കാണ്ട് എനിക്ക് കിട്ടിയ അറിവ് അല്ലെങ്കിൽ എനിക്ക് ലഭിച്ച അറിവ് ഞാാനെന്തു ചെയ്യൂക കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ള മനോഭാവത്തിലെന്തു ചെയ്യുക ആ കുട്ടികൾക്ക് സാമ്പത്തികമുള്ളതായാലും ഇല്ലാത്തതുമായ കുട്ടികൾക്ക് ഒരേപോലെ വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ് ആ ഒരു നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം